ഞാനെൻ്റെ സുഹൃത്തുക്കൾക്ക് പല വിധത്തിലുള്ള ക്രാഫ്റ്റുകൾ ഞാൻ കൈമാറിയിട്ടുണ്ട് സമ്മാനമായി മണ്ണ് കൊണ്ടുള്ള വിഗ്രഹങ്ങൾ പേപ്പർ വർക്കുകൾ അങ്ങനെയുള്ള മുതലായ വർക്കുകളും ഞാൻ ആർട്ട് വർക്കുകളും ഞാൻ ചെയ്ത് കൊടുക്കാറുണ്ട് എനിക്കത് വളരേ സന്തോഷം ഉള്ളതാണ് ഞാന് ഞങ്ങളുടെ അടുത്തുള്ള പാടത്ത് പോയി കളിമൺ ശേഖരിച്ചു കൊണ്ടു വന്ന് അതിനെ നന്നായി കുഴച്ചു മയപ്പെടുത്തി ഞാൻ പല രൂപങ്ങളും വിഗ്രഹങ്ങളും ഉണ്ടാക്കാറുണ്ട് അതിനെ നന്നായി മയപ്പെടുത്തി മയപ്പെടുത്തി അത് എൻറ്റേതായ രീതിയിൽ ഞാൻ സമയമെടുത്ത് നന്നായി വരച്ച് അതിന് കൊത്ത് കൊത്തു പണികളിലൂടെ വരച്ച് അതിനെ ഒരു നല്ല ഒരു രൂപത്തിലാക്കി ഒരു മനുഷ്യനെയാണ് നിർമ്മിക്കുന്നതെങ്കിൽ അതിനെ നല്ല പൂർണ്ണമായ രൂപത്തിലാക്കി ഞാനും നിർമ്മിച്ചിട്ടേ എനിക്ക് സമാധാനാവൂ എനിക്കത് വളരെ സന്തോഷമുള്ളതാണ് ഞാനങ്ങനെ ഉള്ളത് ഉണ്ടാക്കുമ്പോൾ എൻ്റെ കൂട്ടുകാര് എന്നോട് ചോദിക്കാറുണ്ട് ഞാനവർക്ക് സമ്മാനമായി കൊടുക്കാറുമുണ്ട് അതുപോലെ തന്നെ പേപ്പറ് കൊണ്ടുള്ള പൂക്കള് അതുപോലെ വീടുകള് മറ്റു പടങ്ങള് പക്ഷികള് പൂമ്പാറ്റകള് അങ്ങനെയുള്ളവയെല്ലാം കുട്ടികൾക്ക് ഞാൻ ഉണ്ടാക്കാറുണ്ട് അവർക്കത് കിട്ടുമ്പം വളരെ സന്തോഷമാണ് എനിക്ക് ഉണ്ടാക്കുന്നതിലൂടെ എനിക്കും വളരെ സന്തോഷമാണ്